നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ മൂർച്ചയേറിക്കൊണ്ടിരിക്കുകയാണ് ലഹരി സ്ത്രീ പീഡനം സ്ത്രീധന പീഡനം കുട്ടികൾക്കെതിരെ ഉള്ള അക്രമങ്ങൾ ഇത്രയൊക്കെയാണ് കൂടുതൽ ഈ രാജ്യത്ത് തന്നെ വളർ വളർന്ന് വരുന്ന കൊണ്ടിരിക്കുന്നത് ലഹരി ലഹരി എന്ന് പറയുമ്പോൾ പിള്ളേർ കുട്ടികൾ കുഞ്ഞു ജനിച്ച കുട്ടികൾക്ക് ഒരഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കടക്കം വേണം ഈ ലഹരികളൊക്കെ കൊടുത്ത് കൊണ്ടിരിക്കുന്നത് അവർക്ക് ഭയങ്കര അഡിക്ഷൻ ആയി പോവുകയാണ് അവരുടെ പഠനത്തിനെയും ശ ശരീരത്തിനെ ഒക്കെ അത് നല്ലവണ്ണം ബാധിക്കും അവർക്ക് അതിനോടുള്ള അഡിക്ഷൻ കൂടി നമ്മുടെ കുടുംബത്തോടുള്ള കുടുംബത്തോടും സമൂഹത്തോടുള്ള അവർക്കൊരു റെസ്പെക്റ്റ് പോലും ഇല്ലാണ്ട് അവർ അവരുടേതായൊരു ലൈഫിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സ്ത്രീപീഡനം സ്ത്രീപീഡനം ഒരു പെണ്ണുങ്ങൾക്ക് ഒരു സ്ത്രീകൾക്ക് രാത്രി കാലങ്ങളിൽ നടക്കാൻ രാത്രി കാലം റോഡി റോഡിലൂടെ നടക്കാൻ പോലും സാധിക്കാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പം കടന്ന് പോവുന്നത് പിന്നെ സ്ത്രീധന പീഡനം സ്ത്രീധന പീഡനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിയും കഴിക്കാൻ പോകുമ്പോൾ ഒക്കെ പറയും സ്ത്രീധനം വേണ്ട ഞങ്ങൾക്ക് അതിനോടൊന്നും താൽപ്പര്യമില്ല പിന്നീടൊരു പ്രശ്നം വരുമ്പോൾ സ്ത്രീധനത്തെ കുറിച്ച് വളരെ അധികം മനുഷ്യരെല്ലാവരും പറഞ്ഞ് നടക്കുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുട്ടികൾക്കെതിരെയുള്ള ആക്രമണം ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ ജനിച്ച് വരുന്ന കുഞ്ഞുങ്ങളെ അടക്കമാണ് ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി അവരുടെ ശരീരങ്ങൾ മുറിച്ച് മാറ്റുകയും പിന്നെ അവരെ മുടികളൊക്കെ മുറിച്ച് അവരുടെ മേത്തൊക്കെ ചെളി വാരി പൂശി അവരെ ഭിക്ഷാടനത്തിന് വേണ്ടി നടത്തുകയും അങ്ങനെ കൈകൾ കാലുകളൊക്കെ മുറിച്ച് കളഞ്ഞ് റോഡുകളിൽ ഇരുത്തുകയൊക്കെ ചെയ്യും അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ കുറേ അധികം നമ്മളിപ്പം കണ്ടുവരുന്നുണ്ട് ഇതിനൊക്ക മാറ്റം വരണമെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ നിയമ വ്യവസ്ഥിതിയിൽ മാറ്റം വ വരണം നിയമങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കർശനമാകണം പിന്നെ ഇതുപോലെ ഉള്ളതൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക പോലീസിനെ അറിയിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള അറിയുന്ന വലിയ ആൾക്കാരൊക്കെ അറിയിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ മുൻ നിർത്തി കഴിഞ്ഞാൽ ഈ നിയമങ്ങളെല്ലാം മാറ്റി നമുക്കൊരു നല്ല രാജ്യമായെടുക്കാം